ഹലോ ഇത് സ്വിഗ്ഗിയുടെ കസ്റ്റമർ കെയറല്ലേ നമ്മളിൽ നിന്ന് സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു രണ്ട് മണി സമയം ആയപ്പോൾ ഞാൻ ഫുഡ് ഓർഡറ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ സ്ക്രീൻ ഷോട്ടും കാര്യങ്ങളുമുണ്ട് ബട്ട് ഇതേവരെ ഓർഡറെത്തിയിട്ടില്ല നമ്മൾ രണ്ട് മണിക്ക് ഓർഡറ് ചെയ്ത് അരമണിക്കൂറാണ് കാണിച്ചിരുന്നത് പക്ഷേ ഒരു മണിക്കൂറായി ഒന്നര മണിക്കൂറായി ഇതേവരെ ഫുഡെത്തിയിട്ടില്ല ജസ്റ്റ് അതിൻ്റെ കാരണം എന്താണെന്ന് പോലും പറയുന്നില്ല അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ നമുക്ക് ഓക്കെ എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം കൊണ്ടാണ് ഫുഡെത്താൻ ഡെലിവറി ആവാൻ ഇത്രയും സമയമെടുക്കുകയാണെങ്കിൽ ഓക്കെ പക്ഷേ ഇത് നമ്മൾ ഓർഡറ് ചെയ്ത് ഇത്ര മണിക്കൂറായിട്ടും ഫുഡ് കിട്ടുന്നില്ല നമ്മളും വിശന്നിട്ടാണിവിടെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത് സ്വിഗ്ഗി വഴി അതുമല്ല നമുക്ക് കാറോ ബൈക്കിലോ പോയി ഫുഡ് വാങ്ങിക്കാനുള്ള നല്ല രീതിക്കുള്ള ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ട് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വിഗ്ഗിയിൽ നിന്ന് പറഞ്ഞ ആപ്പ് വഴി നമ്മൾ ഫുഡ് ഓർഡറ് ചെയ്യുന്നത് പക്ഷേ ഓർഡറ് ചെയ്തിട്ടും ഇതുവരെ ഫുഡൊന്നും എത്തിയിട്ടില്ല നിങ്ങൾ അതിനുള്ള എന്താണെന്ന് വച്ചാൽ ഒരു പരിഹാരം കാണണം ഇതിങ്ങനെ ആവർത്തിച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും